ആ ഹലോ സാർ ഡെന്നിസല്ലേ ഇത് ഞാൻ വിള ഇൻഷുറൻസിൽ നിന്നാണ് വിളിക്കുന്നത് സാർ നിങ്ങളുടെ ഡോക്യൂമെൻ്റ് നമുക്ക് കിട്ടി നിങ്ങളുടെ ലെറ്റർ നമുക്ക് കിട്ടി ഞാനത് വായിച്ചുനോക്കി ആ നിങ്ങളുടെ അഭ്യർത്ഥന പാലിച്ച് നമുക്ക് നിങ്ങളുടേതിൽ അപ്ഡേഷൻസ് വരുത്തേണ്ടൊരാവിശ്യങ്ങൾക്കായിട്ട് സാറിൻ്റെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കരമടച്ച രസീത് റേഷൻ കാർഡ് എന്നിവ നമുക്കാവശ്യം അതുകൂടാതെന്നെ നമുക്കിതിൻ്റെ ഫോമും സാറിൻ്റെ നിലവും നിലത്തിനോടുള്ള നിലത്തിൻ നിലവുമായി ബന്ധപ്പെട്ട് വരുന്ന രേഖകൾ നമുക്ക് കാണിക്കേണ്ടതുണ്ട് അപ്പോൾ സാർ ഇതെല്ലാമായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് നെക്സ്റ്റ് മണ്ടേ വരേണ്ടതാണ് അതിൽ അതിൽ വരുമ്പോൾ സാറ് നൂറ് രൂപ നമുക്ക് ഒരൂ ഫീ പോലെയുണ്ട് അതുകൂടി സാറ് കൊണ്ടുവരേണ്ടതാണ് നിങ്ങളുടെ ഈ ഇത് നമുക്ക് വാട്സപ്പിൽ അയച്ചുതന്നുകഴിഞ്ഞാൽ നമ്മളിത് ചെയ്തിട്ട് സാറിൻ്റെ ഫൈനൽ സബ്മിറ്റ് സാറ് നേരിട്ട് വന്നാൽ നമുക്ക് സിഗ്നേച്ചറ് ചെയ്യേണ്ടതുണ്ട് സിഗ്നേച്ചറ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ചെയ്തുതരാൻ പറ്റും ഒരു ഫൈവ് ഡെയ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊസസ്സേ ഇതിലുളളൂ അപ്പം സാറെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡീറ്റെയിലായിട്ട് വരിക ഇതിൽ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല സാറിൻ്റെ ലീഗലി ഉള്ള മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത് സാറിന് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞിരിക്കുന്നതും പിന്നെ സാറ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ചെയ്തുതരുന്നതായിരിക്കും